അ ഹലോ ഇത് ആരാണ് സംസാരിക്കുന്നത് ആ അതെ അതെ അതെ ആ ഹാ ഓ എങ്ങനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ടൗണേര്യാണോ ഉദ്ദേശിക്കുന്നത് അതോ കുറച്ചൂടെ ഉൾപ്രദേശങ്ങളാണോ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹാ ഹാ ഹാ എന്നാലും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റേയ്ഞ്ചക്കെ എങ്ങനാണ് ഇപ്പം ആ ഒക്കെ ഒക്കെ ആ ഇവിടെ ഇപ്പം സിറ്റീ ഏര്യേലക്കെയാണെങ്കിൽ ഒരു രണ്ട് രണ്ടരക്കൊക്കെ കിട്ടും ഒരു സെൻറ്റ് രണ്ടരക്കൊക്കെ വെച്ച് കിട്ടും അങ്ങനുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വന്നപ്പം ആ കുഴപ്പമില്ല അങ്ങനുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് പ്ലോട്ട്കൾ നമുക്ക് പോയിക്കാണാം കുഴപ്പമില്ല ആ ഇപ്പം വഴി സൗകര്യങ്ങളുള്ളടത്തക്കയാണെങ്കിൽ ഇച്ചിരൂടക്കെ വില കൂടും രണ്ടരാന്നുള്ളത് ചിലപ്പോൾ മൂന്ന് അതായത് വഴി വഴി സൗകര്യം ഉണ്ടോ വഴി തീർച്ചയായും വഴി സൗകര്യം ഉള്ളതാണ് വഴി സൗകര്യം എന്താ പറയുക കുറെക്കൂടെ കൂടുന്നതിനനുസരിച്ച് ഇച്ചിരൂടക്കെ റേറ്റ് കൂടുവന്നെ ഉള്ളു നമുക്ക് നിങ്ങളാദ്യം വന്ന് നമുക്ക് ആദ്യം സ്ഥലങ്ങളൊക്കെ കാണാം അതിന് ശേഷം പറയാം ആ കുടിവെള്ളമൊക്കെ ഉള്ള നമുക്ക് നോക്കാം അങ്ങനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പ്ലോട്ട് നോക്കാം അപ്പം ഇവിടെ ഉള്ളേര്യേലെക്കെ പൈപ്പ് ലൈനാണ് ടൗണേര്യേലെക്കെ കും കും ഇതാണ് കിണറാണ് ആ അവിടൊരു രണ്ടിന് മേലോട്ടെക്കെ വരും രണ്ടേകാൽ രണ്ടരക്കെക്കെ വെച്ച് വരും ആ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പേശിയൊക്കെ നോക്കാം കുഴപ്പമില്ല നമുക്കൊരു രണ്ടേകാൽനൊക്കെയോ അല്ലെങ്കിൽ രണ്ടേകാലിനോ രണ്ട് നോക്കാം കിട്ടുവോന്നു നോക്കാം രണ്ടിന് കിട്ടുവോ നോക്കാം

ആ ലോറി ലോറി കയറാനായിട്ട് ഉള്ള സൗകര്യങ്ങളക്കെ ഉണ്ട് വല്ല ഫ്ലാറ്റ് വല്ലതും നോക്കുന്നുണ്ടോ വേണേൽ അങ്ങനേം നോക്കാം ടൗണേര്യേലൊക്കെയാണേൽ ഫ്ലാറ്റ്ക്കെ ഫ്ലാറ്റ്കൊള്ള സൗകര്യങ്ങളുമുണ്ട് ടൗണേര്യേലക്കെ ഓക്കെ ആ ഒക്കെ ഒക്കെ അപ്പമൊരു പത്ത് സെൻറ്റ് സ്ഥലവെങ്കിലും വേണ്ടേ അതോ ആ ഒക്കെ ഒക്കെ കുഴപ്പമില്ല നമുക്ക് നോക്കാം നമുക്കൊരു ദിവസം സമയം പോലെ വിളിക്ക് വിളിച്ചിട്ട് എന്നിട്ട് നമുക്കൊന്ന് ചുറ്റി ചുറ്റി ആ കുഴപ്പമില്ല നമുക്കൊരു ദിവസം സമയം പോലെ ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരൂരു രണ്ട് മൂന്ന് പ്ലോട്ട് പോയി ആദ്യം കാണാം കണ്ടിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കി നേരിട്ട് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അതിനുശേഷം നമുക്ക് വിലയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അവരുവൊക്കെ ആയിട്ട് ഒത്തുപോകുന്നു ന്നിത്തു ആ ആറ്റുതീരവൊക്കെ ആകുമ്പോഴത്തെക്കെച്ചാൽ ഇപ്പോഴത്തേക്ക് മഴക്കാലവൊക്കെ അറിയാവല്ലോ വെള്ളപ്പൊക്കം സമയത്തക്കെ ചിലപ്പം വെള്ളം പൊങ്ങിന്ന് വരും ആറ്റു തിരങ്ങളക്കെ ആണെങ്കിൽ പക്ഷേ ആറ്റു തിരക്കെയാണെക്കാരണം കാറ്റ് കൊ കാറ്റ് കൊള്ളാനും കാഴ്ച്ച കാണാനുക്കെ സൗകര്യവാണ് അത് വേറെ കാര്യം പക്ഷേ ഇപ്പം നമുക്കിവിടെ ഈ ആറ്റുതീരവക്കെ ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ഫ്രണ്ട് വ്യൂവോട് ആ കുഴപ്പമില്ല നാളെ എപ്പോഴാണ് സൗകര്യമെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ചിട്ടെ ആ ഇറങ്ങിയ ഒക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ എന്നാപ്പിന്നെ എന്നാൽ പിന്നങ്ങനായിക്കോട്ടെ ശരി എന്നാൽ ശരീന്നാൽ ഒക്കെ ബൈ